ഹലോ സാർ എനിക്ക് എൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടീട്ട് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടീട്ട് ഒരു ജനന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ ആണ് ഒരു കുട്ടിയുടെ ആധാർ കാർഡ് ഫോട്ടോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു ജനന സർട്ടിഫിക്കറ്റ് പകർപ്പ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വേണ്ടെന്ന് പറയുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എനിക്ക് കുട്ടീനെ എൽ കെ ജി സ്റ്റാൻഡേർഡിലേക്ക് ചേർക്കുന്നതിന് അവർ നിർബന്ധമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പകർപ്പ് എങ്കിലും ഒറിജിനലവിടെ കൊടുത്തതിന് ശേഷം പകർപ്പ് കിട്ടുന്നതിന് വേണ്ടീട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എൻ്റെ കുട്ടീപ്പം എൽ കെ ജി സ്റ്റാന്ഡേര്ഡിലേക്കാണ് ചേർത്തിരിക്കുന്നത് ആധാർ കാർഡ് ഫോട്ടോ പിന്നെ എന്തൊക്കെ ആണ് പാരൻസിൻ്റെ എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങൾ പ്രൂഫോ കാര്യങ്ങൾ എന്തെക്കെ ആണ് വേണ്ടത് എന്ന് അറിഞ്ഞിരുന്നിരുന്നു എങ്കിൽ വളരെ ഉപകാരമായിട്ടുള്ള കാര്യമായിരുന്നു